കണ്ണൂർ ജില്ലയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിരവധിയുണ്ട് ചൂടാട്ട് ബീച്ച് ധർമടം ദ്വീപ് അതുപോലെ തന്നെ അറക്കൽ മ്യൂസിയം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കാറുണ്ട് അപ്പം നമ്മൾ ചില ഉത്സവ സമയങ്ങളിലോ അതുപോലെ ഒഴിവ് സമയങ്ങളിലൊക്കെ നമ്മൾ ദ്വീപിലൊക്കെ ബീച്ചിലൊക്കെ പോയി ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകളെ അവിടെ കണ്ടുമുട്ടാറുണ്ട് കേരളത്തിൻ്റെ സവിശേഷത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന അവർക്ക് പച്ചപ്പ് നമ്മുടെ ഹരിത ഭംഗി കേരളത്തിൻ്റെ ഹരിത ഭംഗിയാണ് കൂടുതൽ ഇഷ്ടം അതുപോലെ തന്നെ കണ്ണൂരാകുമ്പോൾ ഇവിടുത്തെ ഭക്ഷണ ക്രമങ്ങൾ അതായത് ബിരിയാണി അതുപോലെയുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾക്ക് ഒരുപാട് പ്രശസ്തിയുള്ള സ്ഥലമാണ് കണ്ണൂർ അപ്പോൾ അവർ ഈ വിനോദസഞ്ചാരികൾ എല്ലാം കൂടുതലായി വരുന്നത് നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ തനതായ ഭക്ഷണ ക്രമങ്ങൾ ആസ്വദിക്കുന്നതിനുമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ നമ്മളോട് പങ്ക് വെച്ച അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്